ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പുതിയ പുതിയ അറിവ് വന്ന് വരിക തന്നെ വരുന്ന ഒരു ഒരു സംഗതിയാണ് ഈ യോഗ നമ്മൾ കുറച്ചുകൂടെ സമയം നമുക്ക് കണ്ടെത്തുവേം കുറച്ചുകൂടെ നമ്മൾ ശ്രദ്ധിച്ച് കുറച്ചുംങ്കൂടെ അതിലോട്ട് ലയിച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമ്മളെ യോഗ സം യോഗ പല തരത്തിലുള്ള സ്റ്റെപ്പുകൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ പുതിയ പുതിയ യോഗ നമുക്ക് നമുക്ക് തന്നെ കുറേ സ്റ്റെപ്പുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു യോഗ നമുക്ക് അത് ചെയ്യാൻ നമുക്ക് സാധിക്കും നമുക്ക് ഇഷ്ടപ്പെട്ടതാവുമ്പോഴത്തേക്കും കുറച്ചുംകൂടെ നമുക്ക് സമയം ചെയ്യാൻ പറ്റും കുറേ കൂടെ നമുക്ക് നമ് ചില എന്ത് നമുക്ക് ചില സ്റ്റെപ്പുകളും ചിലത് നമുക്ക് നല്ല ഇഷ് ഇഷ്ടം ഉള്ളതായിരിക്കും അങ്ങനെയുള്ളത് നമുക്ക് കുറച്ചുംകൂടെ കൂടുതൽ സമയം നമുക്ക് ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് യോഗ വികസിപ്പിക്കാം